ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ഞാനൊരു നേഴ്സ് ആണ് ഞാൻ നേഴ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് സൗദിയിലൊരു ആറേഴ് വർഷം ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ജോലി ചെയ്തിട്ടൊണ്ടങ്കിലും അങ്ങനെ സൗദിയിൽ ഭയങ്കര സ്ട്രിറ്റ് അല്ലേ മുസ്ലിങ്ങളുടെ നാട് അല്ലേ അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങൾക്ക് ഷോപ്പിങ്ങുണ്ട് അപ്പം ഷോപ്പിങ്ങിന് പോവുമ്പം ആ അവർ ഒരു അര മണിക്കൂറ് നേരത്തേക്കേ ഷോപ്പിംങ്ങ് ഉള്ളൂ അപ്പം നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്ക വാങ്ങിക്കാനായിട്ട് ഇത്ര റിയാൽ കടയിൽ പോകേണ്ടവർക്ക് അങ്ങനെ പച്ചക്കറി വാങ്ങാൻ അവർക്ക് അങ്ങനെ ഫിഷ് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ മീറ്റ് വാങ്ങി അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ഓടിയോടി പോയി അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ബസ്സിൽ കയറണം അപ്പം നമുക്കങ്ങനെ സൗദിയിൽ കാണാൻ പോവാനൊന്നും പറ്റുവേല പിന്നെ നമ്മുടെ ഹസ്ബൻഡ് വേറെ സ്ഥലത്തൊക്കയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പോയി നിൽക്കണമെങ്കിൽ നിൽക്കാം അങ്ങനെ പുറത്ത് റൂമെടുത്ത് അങ്ങനെ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്ക് ഒക്കെ നിൽക്കാം അങ്ങനെ അല്ലാതെ സൗദിയിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളെന്ന് പറയാനാട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ പോയ സ്ഥലങ്ങൾ ബിഷാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ദമാമ് അങ്ങനെ ഈ രണ്ടു സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വേറെ സ്ഥലങ്ങളൊന്നും സൗദിയിൽ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് പിന്നെ മാലിദ്വീപിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട് ആ മാലിദ്വീപിൽ പോയി ജോലി ചെയ്തിട്ട് ആണെങ്കിലും നമുക്ക് കുറച്ച് അവിടെ മുഴുവൻ അയിലൻഡുകൾ അല്ലേ കുറേ ദീപുകൾ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ കുറച്ച് ദ്വീപുകളെല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ അവിടെ ഐലൻഡുകളിൽ വലിയ നമ്മുടെ ഗെവൺൻ്റ് ഹെൽത്ത് സെൻ്ററ്കളിലാണ് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ട് വള്ളത്തിൽ കയറിയിട്ടുണ്ട് കപ്പലിൽ കയറിയിട്ടുണ്ട് സ്പീഡ് ബോട്ടിൽ പോയി യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ മോളുമായിട്ട് ഞാൻ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട് മോളെ കൊണ്ടുപോയി മോളുമായിട്ട് അവിടെ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഏരിയകളൊക്കെ പോയി മോളെ മോൾ കുഞ്ഞിലെ ആണ് അവളെ കൊണ്ടുപോയത് അവൾ അങ്ങനെ കുറച്ച് നാളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ പോയേക്കുന്ന സ്ഥലങ്ങളെന്നു പറയനായിട്ട് ഇസ്രയേലാണ് ദൈവത്തിൻ്റെ വിശുദ്ധ നാട്ടിൽ പോയേക്കുന്നതാണ് വിശുദ്ധ നാട്ടിലാണെങ്കിലും ഒരു രണ്ടേമുക്കാൽ വർഷം ഞാനവിടെ ജോലി ചെയ്തെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇസ്രയേല് കാണാൻ പറ്റും കാരണം നമുക്ക് ശനിയാഴ്ച ദിവസം നമുക്ക് അവിടെ നമുക്ക് ഓഫ് അല്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഓഫ് എടുക്കാം ഓഫ് എടുത്ത് നമുക്ക് അവിടെ ടൂറ് പോകുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോവാം പക്ഷെ എനിക്ക് അധികം പോവാൻ പറ്റിയില്ല എന്നാലും അത്യാവശ്യം പോകേണ്ട ഒന്ന് രണ്ട് രണ്ടുമൂന്നു സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടു അങ്ങനെ കണ്ട് കേട്ട് ഞാൻ അവിടുന്ന് നാട്ടിൽ തിരിച്ചു വന്നു പിന്നെ പിന്നെയും ഇതുപോലെ സൗദിയിൽ വീണ്ടും പോയി സൗദിയിൽ ഇതുപോലെ ഇതുപോലെത്തന്നെ കുറച്ചുനാൾ അവിടെ ജോലി ചെയ്തു പക്ഷെ സൗദിയിൽ അങ്ങനെ ഈ ഇവിടുന്ന് പോവുന്ന എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നു പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലുകാർ വണ്ടിക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ പോകുമ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം പറ്റിയിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പം അടുത്തത് ഇറ്റലിക്ക് പോവാനായിട്ട് നോക്കുകയാണ് ഇറ്റലിയിൽ ഒരുപാട് ഒരുപാട് കാണാനുള്ള നല്ല സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത് ഒരുപാട് പള്ളികൾ അങ്ങനെ നോക്കുകയാണ് അവിടെ പോയി പറ്റിയാൽ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ പോവാം പറ്റിയാൽ പോകണം അവിടെ ഫാമിലിയായിട്ട് അനുവാദമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അങ്ങനെയൊരു ആഗ്രഹത്തിലിപ്പം ജീവിക്കുന്നു അങ്ങനെ ഇറ്റലിയിൽ പോവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും അറിയത്തില്ല പിന്നെ പോയേക്കുന്ന സ്ഥലങ്ങളെന്ന് പറയാൻ ആലപ്പുഴ ബീച്ച് കണ്ടിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ രണ്ടുമൂന്നു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെപ്പോയി സ്പീഡ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് മക്കളുമായിട്ട് ഇരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പള്ളിയിൽ പോയിട്ടുണ്ട് പിന്നെ മൂന്നാറ് പോയിട്ടുണ്ട് മൂന്നാറ് പരുന്തുംപാറ പിന്നെ വാഗമണ്ണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ പോയി ഞങ്ങൾ ഒരു ദിവസം മുറിയെടുത്ത് മക്കളുമായിട്ട് സന്തോഷവായിട്ട് അവിടെപ്പോയി ഒന്നിച്ചു നിന്ന് ഫോട്ടോയെടുത്തു അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം സ്റ്റേ ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ പോയേക്കുന്ന പറയുന്ന സ്ഥലങ്ങളെന്ന് പറയാനാട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നല്ല നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു കൂടാൻ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടുക എന്നുള്ളത് അങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ട് ആ ഒരു സന്തോഷം വലിയ സന്തോഷമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാൻ അതേ ഉളളൂ അങ്ങനെയൊക്കെ ഒരുപാട് ഒത്തുകൂടി സന്തോഷകരമായിട്ടുണ്ട് പിന്നെ അങ്ങനെ പ്രത്യേച്ച് കുറേ പള്ളികളിലൊക്കെ പോയിട്ടുണ്ട് പള്ളികളിൽ പോയി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പോട്ടക്ക് ധ്യാനം കൂടാൻ പോയിട്ടുണ്ട് അങ്ങനെ ധ്യാനം കൂടാൻ പോയി തൊടുപുഴയിലെ ഏഴുമുട്ടം ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ ഒക്കെ പോകുമ്പോൾ ഉള്ള കുറച്ചു സ്ഥലങ്ങളൊക്കെ കുന്നും മലകളും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല ഇത്രയൊക്കെയാണ് പോയേക്കുന്നത്